മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ശാരീരിക ക്ഷമത നീന്തൽ മൂലം ഓടുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നീന്തുന്ന ഡെയ്ലി നീന്തുന്ന വ്യക്തിക്ക് വ്യായാമം ചെയ്യണം ശരീരത്തിൻ്റെ ഭാരം ഇതൊക്കെ ഒരു ഒരു ഒരു കണ്ടിന്യുവിറ്റികൊണ്ട് പോകേണ്ടി വരും ഒരു നീന്തൽ താരത്തിനൊക്കെ അതിൻ്റെതായ കോച്ചിങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റെ കോച്ച് പറയുന്നതുമാതിരി അതിനോടുള്ള ഫുഡ് അത് ശരീരത്തിൻ്റെ ഭാരം ഇതെല്ലാം അവർ നിഷ്കർഷിക്കുന്നതുപോലെ തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ഈ മൊത്തത്തിൽ നീന്തുന്നത് നീന്തൽ മൂലം ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നീന്തൽ അങ്ങനെയാണ് ശ്വസനത്തെ നിയന്ത്രിക്കുക കാരണം നമുക്ക് ഒരു വെള്ളത്തിൽ നമുക്ക് ശരിക്ക് ശ്വസിക്കുവാൻ പ്രയാസമാണ് അത് നമുക്കറിയാം ഒരു വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ശ്വാസം വിട്ടുവേണം അപ്പം നമ്മുടെ ശ്വാസകോശങ്ങളെ അത് നിയന്ത്രിക്കാം നിയന്ത്രിക്കണം നല്ലവണ്ണം കാരണം നമ്മൾ ഈ ലങ്ങ്സ് ചുരുങ്ങുകയും ലങ്ങ്സ് വികസിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നത് അപ്പോൾ ഇത് ഇത് നമുക്ക് ഈ നീന്തലിന് നമുക്കത് വളരെ കണ്ട്രോൾഡ് ആയിട്ട് പോകണം നമ്മുടെ ശ്വാസത്തെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യമാണ് അവർ യഥാർത്ഥ നീന്തൽക്കാരൻ അതുപോലെ തന്നെ യോഗ ഒക്കെ അഭ്യസിക്കുന്ന സമയത്തും നമ്മൾ ഈ ശ്വാസത്തെ കണ്ട്രോൾ ചെയ്യാറുണ്ടാവുന്നത് അത് നമ്മുടെ ശ്വാസം എടുക്കുന്നത് ഇത്ര സെക്കൻ്റ് ആണെങ്കിൽ ശ്വാസം വിടുന്നത് ഇത്ര സെക്കൻ്റ് എന്നൊക്കെ ഉള്ള ഒരു കൺട്രോൾഡ് ശ്വാസത്തെ നമുക്ക് സ്വയം കണ്ട്രോള് ചെയ്യാൻ പറ്റും ഒരു യഥാർത്ഥ നീന്തൽകാരൻ അതങ്ങനെ അതുകൊണ്ട് യഥാർത്ഥ ഈ നീന്തൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആരോഗ്യകരമായ ആരോഗ്യത്തിന് നല്ലതാണ് താനും അതുപോലെതന്നെ ശാരീരിക ക്ഷമത നമുക്ക് നീന്തൽ മൂലം വർദ്ധിപ്പിക്കുകയും ചെയ്യാം സംഗതി പ്രതേകിച്ചുണ്ടാവുന്നത് എന്നു പറഞ്ഞാൽ ഈ ശ്വാസത്തെ നമ്മൾ കണ്ട്രോള് ചെയ്തു നിർത്തുന്നു എന്നുള്ളതാണ് സംഗതി നമ്മുടെ നമ്മുടെ കണ്ട്രോള് അനുസരിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതും നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നതും ഇത് രണ്ടും നമ്മുടെ കൺട്രോളിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ് നീന്തൽ എന്നു പറയുന്നത് അപ്പം അത് അത് നമുക്ക് വളരെ നന്നായി ഈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും സഹായവും ആവുന്നുണ്ട് അതാണ് എൻ്റെ ഈ നീന്തലിനെക്കുറിച്ച് എൻ്റെ ഒരു നീന്തൽ നമ്മുടെ കായിക അഭ്യാസം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അപ്പം ശരീരഭാരം നമ്മൾ കഴിക്കുന്ന ആഹാരം ഇതൊക്കെ ഒരു കണ്ട്രോൾ ആയിട്ട് പോയി വെയ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കും ഒരു നീന്തൽക്കാരന്